ഹലോ ചങ്ങനാശ്ശേരി ക്യാബോഫീസല്ലെ ഞാനെലിസബത്ത് പി തോമസ് ഞാനീയിടെ അടുത്തൊരു ദിവസം ക്യാബ് ബൂക്ക് ചെയ്തായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന് ക്യാബോഫീസിൽ നിന്നാണ് ബുക്ക് ചെയ്തത് എനിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കു പോകാനായിരുന്നു രാവിലെ ഒൻപത് മണിയ്ക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം ഇവിടെ നിന്നു നമുക്കൊരു നാലുമണിയൊക്കെയാകുമ്പോൾ ഇറങ്ങണം അന്നാലെ അവിടെയെത്തത്തുള്ളു പിന്നെ നിങ്ങൾ അതിന്റെ സമയം ഒന്ന് അറിയിയ്ക്കാമോ ഡ്രൈവറിനോട് ചോദിച്ചിട്ട് കറക്റ്റ് നാലുമണിയാകുമ്പോൾ ഇവിടെയെത്തുന്ന രീതിക്കൊന്നു വരാൻ ശ്രമിയ്ക്കണം ട്രാഫിക് ബ്ലോക്കെങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽപ്പിന്നെ ഫ്ലൈറ്റ് മിസ്സാകാൻ സാദ്ധ്യത കൂടുതലാണ് കറക്റ്റ് ഒൻപതു മണിയാകുമ്പം എയർപ്പോട്ടിന്റകത്തു കയറണം ചെക്കിങ്ങൊക്കെ ഉള്ളതല്ലെ അപ്പം നിങ്ങളതൊന്ന് ടൈം ഫിക്സ് ചെയ്യണെ പിന്നെ ഞാൻ ലൊക്കേഷനിട്ടായിരുന്നു കിട്ടിയായിരുന്നൊ ഓക്കെ കിട്ടിയല്ലോ ഓക്കെ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചു വെള്ളമൊക്കെ ഉണ്ടങ്ങോട്ടു കയറുന്നിടത് വഴിയിൽ ജസ്റ്റ് ഇച്ചിരി വെള്ളമെ ഉള്ളൂ അപ്പം ഇവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഡ്രൈവറുടെ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതു തന്നെയേ ഉള്ളു നേരത്തെ അറിയിച്ചെന്നെ ഉള്ളു വെള്ളം കാണും പിന്നെ ഇച്ചിരി നേരത്തെ വരുമോ മഴയൊക്കെയാണെന്നറിയാമല്ലൊ അപ്പോൾ ട്രാഫിക് ബ്ലോക്കോ മഴകാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ലേയ്റ്റാകാതിരിക്കാൻ വേണ്ടിയ നാലുമണി നാലേ മൂന്നേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടിവന്നാലും കുഴപ്പാമൊന്നുമില്ല പിന്നെ പേമെൻറ്റെങ്ങനായിരുന്നു പേമെൻറ്റിലെ കാര്യം പിന്നെ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത് ആർക്കായിരുന്നു പേമൻറ്റ് കൊടുക്കേണ്ടത് ഡ്രൈവറിനു കൊടുത്താൽ മതിയൊ നിങ്ങളുടെ ഏജൻസിയിലായാൽ അറീയ്ക്കണൊ നേരിട്ട് നിങ്ങൾക്ക് ഏജൻസിയിൽ തന്നാൽ മതിയൊ ഓക്കെ ഓക്കെ ഓക്കെ സാറെ ഞ ഏജൻസിയിൽ ഞാൻ തന്നേക്കാം ഗൂഗിൾ പേ നമ്പറുണ്ടൊ ഗൂഗിൾ പേ ആയിരുന്നെങ്കിൽ എനിക്ക് ഫോണിൽക്കൂടി ഇടാമായിരുന്നു ഓക്കെ ഗൂഗിൾ പെ ഉണ്ടല്ലെ അപ്പം ഇത് തന്നെയാണൊ നമ്പർ ഒ വേറെ നമ്പറുണ്ടല്ലെ ഓക്കെ ഓക്കെ അപ്പം ആ നമ്പറൊന്നു സെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പം എനിക്കതങ്ങു ചെയ്യാമല്ലൊ അപ്പം നാളെയാണല്ലൊ അപ്പം പോകണ്ടെ അപ്പം കറക്റ്റ് ടൈമിനു വണ്ടി വരുമെന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ സാർ താങ്ക് യൂ